ആ ആ അതെ അതെ ആ അതെ അവിടുത്തെ മാനേജര് ആണ് അതെ

അല്ല ഇപ്പോൾ താങ്കൾ ഇപ്പം എവിടെയാണ് ആ പാലക്കാട് ഹൈവേൽ അല്ലേ ഓക്കെ ഓക്കെ ഓക്കെ പറഞ്ഞുകൊള്ളൂ സാർ ആ ഓക്കെ ഓക്കെ നിങ്ങൾ ഇപ്പോൾ കറക്റ്റ് സ്ഥലം എവിടെയാ മണ്ണുത്തി എത്താറായോ ആ മറ്റെ പാലക്കാടുനിന്ന് വരുമ്പോൾ ആ യെസ് ഇട്ടിരിക്കുകയാണല്ലേ ആ മറ്റേ വെറ്ററിനറി കോളേജിൻ്റ അവിടെ ആ ഓക്കെ ഓക്കെ അപ്പോൾ താങ്കൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ തീരെ പ്രഷറ് കിട്ടാണ്ട് വരുന്നുണ്ടോ ഞെങ്ങി പോകുന്നുണ്ട് ആണോ കൂടെ ആരെങ്കിലും ഉണ്ടോ ആണോ അപ്പോൾ എവിടുന്നാ വീലുന്ന് ചക്രത്തിൽനിന്നാണോ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് പോവുന്നത് ഓ അത് ഇപ്പോൾ ഞങ്ങൾ ഇപ്പം ഇവിടെ മണ്ണുത്തി സെൻ്ററ്നിന്ന് കുറച്ച് ദൂരെപ്പോയിട്ടാണ് കാളത്തോട് എന്ന് പറയും കാളത്തോട് ഭാഗത്താണ് അപ്പോൾ അവിടുന്ന് ഞാൻ വേണമെങ്കിൽ ഒരാളെ പറഞ്ഞയച്ചു തരാം അതിലിപ്പോൾ ബ്രേക്കിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് മിക്കതും അവിടെ കാലിബറിൽ എന്തെങ്കിലും അല്ലെങ്കിൽ വയറിങ് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലൈൻൽ എന്തെങ്കിലും പണി കിട്ടിയതായിരിക്കാൻ ചാൻസുണ്ട് അല്ലെങ്കിൽ കല്ല് തട്ടിയിട്ട് അത് ലീക്ക് ആയിട്ടുണ്ടാകും കട്ട ആയിട്ടുണ്ടാകും ഓക്കെ ആ അതുതന്നെ അതുതന്നെ ആവാനാണ് ചാൻസ്സ് കാരണം ആണല്ലേ നമ്മുടെ മെയിൻ പ്രശ്നം വരാൻ ചാൻസ്സ് ഈ റോട്ടിലെ ടയറ് റോട്ടിലെ കല്ലുകൾ ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ അത് ചിലപ്പം തട്ടിയിട്ട് ടയറിൻ്റെ ഉള്ളിൽ കയറി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ആയിട്ടുണ്ടാകാനാണ് ചാൻസ്സ്

ഞാൻ ഞാൻ ഞാൻ ആ ഓക്കെ ഞാൻ തന്നെ വരാം ഞാൻ തന്നെ വരാം ഞാൻ ദേ ഇപ്പം തന്നെ വരാം നിങ്ങളുടെ ലൊക്കേഷൻ ഒന്ന് എനിക്ക് വാട്ട്സപ്പില് ഈ നമ്പറിലേക്ക് തന്നെ അയച്ചിട്ടാൽ മതി അ ഓക്കെ ഓക്കെ ആ എൻ്റെ എൻ്റെ പേര് എൻ്റെ പേരാണ് ബാജുബി ഞാനാണ് ഇതിൻ്റെ ആ അതെ അതെ അതെ അതെ അതെ ആ മനസ്സിലായി മനസ്സിലായി അപ്പം പെട്ടെന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് അയച്ച് തന്ന് കഴിഞ്ഞാൽ ഐ മീൻ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസും അതും പെട്ടെന്ന് അയച്ച് താ അവിടുന്ന് ഒരു അര മണിക്കൂറ് ആ വേണമെങ്കിൽ രണ്ട് മിനിറ്റിൽ എത്താം പേടിക്കേണ്ട ഞാൻ കാറില് ആ ഓക്കെ ആയിക്കോട്ടെ

ആ ഞാൻ ഞാൻ വിളിക്കാം നിന്നെ അപ്പോൾ താങ്ക് യു ഫോർ കോളിങ് ബാജൂബി സർവീസെസ് നമുക്ക് നേരിട്ട് കാണാം ഓക്കെ ശരി